ബാല്യകാലസ്മരണകളെന്ന് പറയുമ്പോൾത്തന്നെ എനിക്കാദ്യം ഓർമ്മ വരുന്നത് എൻ്റെ ഫ്രണ്ട്സിനെയാണ് ചെറുപ്പത്തിൽ കുറേ കാര്യങ്ങൾ ചെറുപ്പത്തിൽ എന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ട് രാവിലെ ആറു മണിക്ക് മദ്രസ്സയിൽ പോകണമായിരുന്നു അത് ഞങ്ങൾ മുസ്ലീങ്ങൾക്കുള്ളതാണ് മദ്രസ്സ ആറ് മണിക്ക് എണീച്ച് മദ്രസ്സയിൽ പോകണം ആറര ആകുമ്പോൾ മദ്രസ്സയിൽ എത്തണം പക്ഷെ ഞങ്ങൾ പോകുന്നത് കാട്ടിലൂടെയാണ് ഒരു വീട് ഞങ്ങള് വീടിൻ്റെ അവിടെ മൊത്തം പതിനെട്ട് വീടുണ്ട് ഈ പതിനെട്ട് വീട്ടിലെ എല്ലാ കുട്ടികളും കൂടി ചേർന്നു ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ രാവിലെ വടിയൊക്കെ എടുത്ത് ആ കാട്ടില് പന്നിയുണ്ട് കാട്ടുപോത്ത് ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ വടിയെടുത്ത് ടോർച്ചെടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു പോവുക അന്ന് ഞങ്ങൾക്ക് തല തലയും മഫ്ത എന്നു പറഞ്ഞിട്ടൊരു സാധനം പർദ്ദ ഇട്ട് കയ്യിൽ ഞങ്ങൾ പുസ്തകം പിടിച്ച് പോവുകയാണ് അതും രാവിലെ രാവിലെ ആറ് മണിക്ക് ഇരുട്ടാവും എല്ലാവരും കയ്യിൽപ്പിടിച്ച് ഒരുമിച്ച് പോവുകയാണ് അതൊക്കെ ഭയങ്കര രസമായിരുന്നു അതുപോലെത്തന്നെ അവിടെ ചെന്ന് പിന്നെ ഞങ്ങൾക്ക് പത്ത് മണിയാവുമ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു അര മണിക്കൂര് സമയം തരും അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ കുറേക്കുറേ കാര്യങ്ങൾ അത് പിന്നെ അവിടെ നിന്ന് ഞങ്ങളെല്ലാരും കൂടി ഒരു പതിനൊന്നരയാവുമ്പോൾ തിരിച്ച് വരുക ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു ഇന്നൊന്നും എനിക്ക് ആ ഒരു കാലം തിരിച്ച് കിട്ടുകയേ ഇല്ല അതുപോലെത്തന്നെ ഞങ്ങൾ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് അഞ്ച് പേരുണ്ടായിരുന്നു അവരൊക്കെ ഞങ്ങള് ചോറ് കൂട്ടാൻ വെച്ച് കളിക്കുക പാവക്കുട്ടീനെയായിട്ട് അമ്മയും കുട്ടിയുമായി കളിക്കുക അങ്ങനെ കുറേ ഞങ്ങൾ കളിച്ചിട്ടുണ്ട് കടയിൽ പോയി സാധനം വാങ്ങുന്നപോലൊയൊക്കെ കളിച്ച് ഞങ്ങൾ കുറേ കളിക്കാറുണ്ട് കുറേ ഞങ്ങൾ സംസാരിക്കും ഫുള്ള് അന്ന് വീട്ടിൽ കയറില്ല ഫുള്ള് പുറത്ത് ഒളിച്ചു കളി ഓടിക്കളി അങ്ങനെ പലപല കളികളായിട്ട് ഞങ്ങൾ നടക്കുമായിരുന്നു അതൊക്കെയെന്നു പറഞ്ഞാൽ ഏറ്റവും തിരിച്ചുകിട്ടാത്ത നിമിഷങ്ങളാണ് എൻ്റെ ലൈഫില് ഇന്നിപ്പോൾ അവര് കല്ല്യാണം കഴിഞ്ഞു അവർക്ക് കുട്ടികളായി അപ്പോൾ ഇന്ന് എനിക്കിതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ ആ ടൈമില് എന്തോ ഒന്ന് തിരിച്ചു കിട്ടാത്ത ഭയങ്കര ഓർമകളാണ് എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം